തീർച്ചയായിട്ടുണ്ട് ഇന്നത്തെ ആധുനിക യുഗത്തിൽ എൽ പി ജി കണക്ഷനുണ്ടോ എന്ന ചോദ്യത്തിന് എന്തു പ്രസക്തി ഒരു നൂറ് മനുഷ്യരെടുത്താലതിലൊരു തൊണ്ണൂറ്റഞ്ച് മനുഷ്യരുടെ വീട്ടിൽ എൽ പി ജി കണക്ഷൻ കാണും വിറകടുപ്പ് ഇല്ലെന്നു പറയുന്നില്ല ഇന്നത്തെ മിക്ക വീടുകളിലും വിറകടുപ്പും എൽ പി ജിയും ഒരുമിച്ച് ഉള്ള വീടുകളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പക്ഷേ ഈ വീടുകളിലോട്ടൊക്കെ നമ്മളൊരു യാത്ര നടത്തുമ്പോൾ നമുക്ക് മറ്റൊരു കാരണം കാര്യം അറിയാനായിട്ടു സാധിക്കുന്നത് വിറകടുപ്പുകളെ കഴിഞ്ഞും ഇന്ന് വ്യക്തികൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എൽ പി ജി കണക്ഷനുള്ള ഗ്യാസുകൾ തന്നെയാണ് അതിനു പല കാരണങ്ങൾ നമുക്ക് പറയാനായിട്ടു സാധിക്കും അതിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്കുണ്ടാകുന്ന സമയ ലാഭം നമുക്കുണ്ടാകുന്ന റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും ഒരു പക്ഷേ വിറകടുപ്പിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതു കത്തിക്കാൻ പെട്രോൾ വേണം അതിനു വേണ്ടി വിറകു വേണം മണ്ണെണ്ണ വേണം പിന്നെ ഇടയ്ക്കിടക്ക് തീ ഉണ്ടോ തീ ഉണ്ടോ ഇല്ലെങ്കിലത് ഊതി കൊടുക്കുക അപ്പം വരുന്ന പുകയടിക്കുക അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിറകടുപ്പുപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടി വരും പക്ഷേ എൽ പി ജി കണക്ഷനാണെങ്കിൽ എന്തു കൊണ്ടും ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തിയാണ് സമയം ലാഭം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഒരു ഗ്യാസ് ഒരു എൽ പി ജി കണക്ഷനെടുത്ത് വെച്ചാൽ തന്നെ ഒരുപാട് ഒരു മാസത്തോളം നമുക്കത് തന്നെ ഉപയോഗിക്കാം മലിനീകരണം നമുക്ക് കുറക്കാം വിറകടുപ്പിൽ നിന്നു പുക മലിനീകരണം ഉണ്ടാകുന്നു പക്ഷേ നമ്മളതൊരു ഗ്യാസ് എൽ പി ജി കണക്ഷനിലോട്ടു പോകാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അങ്ങനെയുള്ള മ മലിനീകരണം തടയാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ഒരേ സമയം രണ്ടു മൂന്നു നാല് അടിപ്പിലൊക്കെ ആയിട്ട് എൽ പി ജി കണക്ഷൻ വെച്ചു നമുക്ക് പാചകം ചെയ്യാനും വെള്ളം തിളപ്പിക്കാനൊക്കെ സാധിക്കുന്നു ഇതൊക്കെ വെച്ചു നോക്കുമ്പോൾ എൽ പി ജി കണക്ഷൻ തീർച്ചയായിട്ടും നല്ലതാണ് തീർച്ചയായിട്ടും അതില്ലാത്തൊരു ലോകത്തെ പറ്റി ഇനി ചിന്തിക്കുക വരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ്